എൻ്റെ രണ്ടാമത്തെ പ്രൊഡക്ട് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കണ്ടെയ്നർസാണ് ഞാൻ അത് ഓരോ മൂന്ന് നാല് ദിവസം ആയി മേടിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു നമുക്ക് അതായത് മഹാമേള എന്ന് പറഞ്ഞ് ഒരു ഇത് ഉണ്ട് നമുക്ക് കോഴിക്കോട് നമുക്ക് ഇവിടെ പറയുകയാണെങ്കിൽ മുട്ടായിതെരുവിൻ്റെ അവിടെ തന്നെ അപ്പം ഞാൻ അവിടെ നിന്ന് സെറ്റ് ആയിട്ട് മേടിച്ചൊരു സാധനം ആണ് ഇത് അതായത് നമുക്ക് ഏഴെണ്ണം ആണ് കിട്ടിയത് ഒരേപോലത്തെ കളർ ഉള്ള ഏഴ് ഡപ്പികൾ അതായത് നമ്മൾ മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് പഞ്ചസാര അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇടാൻ പറ്റുന്ന ടാപ്പികൾ അതായത് ഓവർ വെയ് വലിപ്പം ഒന്നുമില്ല അത്യാവശ്യം ചെറുതാണ് നമുക്ക് റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുനൂറ്റി അൻപത് രൂപയാണ് ഏഴ് എണ്ണത്തിന് അപ്പോൾ വലിയ കണ്ടപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടു കാണാൻ ഒക്കെ നല്ല ഭംഗിയാണ് പിന്നെ അതു കൊണ്ട് തന്നെയാണ് ഞാൻ മേടിച്ചതും നമുക്ക് അടുക്കളയിൽ വെക്കാൻ നല്ല ഭംഗിയാണ് അല്ലേ അതിൻ്റെ മെയിൻ നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ ഉള്ളത് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് കണ്ടെയ്നർസാണ് അല്ലേ പ്ലാസ്റ്റിക് നമ്മൾ പൊതുവെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ ഇവിടെ അന്തരീക്ഷത്തിൽ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണല്ലോ അപ്പം അതു കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് ആയതു കൊണ്ട് ആണ് മെയിൻ ഒരു നെഗറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ആണ് എന്ന ഒരു നെഗറ്റീവ് മാത്രമേ ഇതിന് ഉള്ളു